വളരെയധികം സവിശേഷമായ ഒരു ഭാഷയാണ് മലയാളഭാഷ വ്യാകരണവും ഉച്ഛാരണവും പോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒന്നാണ് മലയാളഭാഷ മലയാളഭാഷയുടെ ചില പ്രത്യേക സവിശേഷതകൾ എന്ന് പറയുന്നത് അതിലെ ശൈലികൾ അതിലെ പദങ്ങൾ മലയാളത്തിലെ കാവ്യങ്ങൾ എന്നിവയെല്ലാമാണ് ഇതിലെല്ലാം ഒരുപാട് അർത്ഥവത്തമുള്ള ഒരു ഭാഷയാണ് മലയാളം മലയാളത്തിൽ അമ്പത്തിനാല് അക്ഷരങ്ങളാണുള്ളത് അതിൽ ഏറ്റവും വലിയ ഭാഷകളിലൊന്നാണ് മലയാളം മറ്റുള്ളവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷകൂടിയാണ് മലയാളം അതിനുള്ള കാരണം ഇതുപോലുള്ള ചില സവിശേഷതകൾ തന്നെയാണ് മലയാള ഭാഷ വളരെയധികം നല്ലൊരു ഭാഷയായി ഞാൻ കണക്കാക്കുന്നു